നമ്മൾ വീട്ടിൽ വീട്ടിലെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് ഒരു കുറവും സംഭവിക്കാനില്ല ഒരു കോട്ടവും തട്ടാനില്ല പുറത്തു നിന്നും ആഹാരം വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളുമെല്ലാം മനുഷ്യർക്ക് ഉണ്ടാകുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒത്തിരി അസുഖങ്ങൾ ഈ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദിവസേന നടക്കുന്നു പിന്നെ ഫുഡ് അലർജികളും വയറിളക്കവും കാര്യങ്ങളും എല്ലാം ഈ ഫുഡിലൂടെ പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന അതായത് ഇപ്പഴുള്ള ഫുഡ് ആഹാര സാധനങ്ങളുടെ ആ ഒരു ക്രമീകരണത്തിലൂടെ നമുക്ക് നാശമായി ഭവിക്കുകയാണ് ചെയ്യുന്നത് പണ്ടത്തെ അമ്മച്ചിമാര് ഉണ്ടാക്കി തരുന്ന ആഹാരത്തിനൊക്കെ അസാധ്യ ടേസ്റ്റായിരുന്നു കാര്യം അതിനകത്ത് അവരൊന്നും മായം ചേർക്കാറില്ല അന്നത്തെ മനുഷ്യന്മാർക്ക് ഇന്നത്തെ പോലുള്ള ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു ഇന്ന് പക്ഷെ കുഞ്ഞു കുട്ടികൾ മുതൽ തലമൂത്ത അപ്പച്ചനും അമ്മച്ചിമാർക്കും വരെ ഭയങ്കര അസുഖങ്ങളില്ലാത്ത ഒരു സമയവും ഇല്ല അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ പുറം വേദനയും തല വേദനയും കാല് കൈമുട്ട് എന്നിവയെല്ലാം വേദനയും ഒക്കെ ആയിട്ട് അവരിന്ന് ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി നടക്കുന്നു എന്നാൽ പഴയ കാലത്ത് തലമുറകൾക്കോ ഇത് യാതൊരു വക അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമിലായിരുന്നു അതെന്താന്നു വച്ചാൽ അവരുടെ ആഹാരത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് അവരങ്ങനെയാണ് ആ അന്നത്തെ കാലത്ത് കഴിഞ്ഞ് പൊക്കോണ്ടിരുന്നത് ഇന്ന് എല്ലാവരും എളുപ്പ വഴികൾ നോക്കും മെയ്യ് അനങ്ങാതെ പണി ചെയ്യുക എന്നുള്ള രീതിയില് എല്ലാവരും എളുപ്പവഴി നോക്കും പക്ഷെ അതുണ്ടാകുന്നത് നമുക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളാണെന്ന് ഇവര് ആരും അറിയുന്നില്ല അതിനാൽ നമ്മൾ കഴിവതും പഴയ കാലത്തെ വീട്ടുകാർ പഴയ കാലത്തെ അപ്പൻ അമ്മച്ചിമാർ ചെയ്തത് പോലെ നമ്മള് ഈ ഒരു തലമുറയെയും അത് പഠിപ്പിക്കുക നമ്മളെ കുഞ്ഞുങ്ങളെയും വരും തലമുറകളെയും നമ്മൾ പഴയ കാല സമ്പ്രദായത്തിൽ തുടരുവാനായിട്ട് അവരെ അനുവദിക്കുക കൂടുതലായിട്ടും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആ ഒരു ഉപയോഗ ഉപയോഗം അവരും വളർത്താതിരിക്കുക എന്നാൽ മാത്രമേ ആരോഗ്യവും സമ്പുഷ്ടവുമായ ഒരു പുതു തലമുറയെ നമുക്ക് വാർത്ത് എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വിദേശികൾ വന്ന് വിദേശികൾ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി ദിവസവും വന്നു കൊണ്ടിരിക്കുവാണ് അവർക്ക് നമ്മളുടെ ഹോംലി ഫുഡെന്നു പറഞ്ഞാൽ എന്ത് ടേസ്റ്റായിട്ടാണ് അവര് കഴിക്കുന്നത് എന്ത് രുചിയോടാണ് അവര് കഴിക്കുന്നതെന്ന് അറിയാമോ അവർക്ക് നമ്മുടെ കേരളീയരുടെ ആഹാരം നല്ല വളരെ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാര് ഉണ്ടാക്കുന്ന ആഹാരം നമ്മുടെ അമ്മ അമ്മച്ചി അവരുടെ മുത്തശ്ശൻ മുത്തശ്ശിമാര് എന്നിവരുണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റുള്ള സാധനമാണ്